നമുക്കറിയാം നമുക്ക് ഒരുപാട് ചിന്തകളുണ്ട് ബാങ്ക് ഇപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ബാങ്ക് അക്കൗണ്ടുള്ള ആളുകളാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ഒരുപാട് ചോദ്യങ്ങളുള്ള ആളുകളാണ് നമ്മളെല്ലാവരും ഇത്തരത്തിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത് വളരെ വലിയ ഒരു ചോദ്യച്ചിഹ്നം തന്നെയാണ് എന്നാൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നതു തന്നെ ഒറ്റ ഒരു വാക്കാണ് അതെന്നതാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇല്ല പറ്റില്ല പരസ്യം അതാണ് അതിനുള്ള ഉത്തരം എന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസ് പേപ്പർ പത്രങ്ങളിൽ കാണുന്നത് ടി വിയിൽ കാണുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കാണുന്നത് ഇന്റർനെറ്റുകളിൽ കാണുന്നതെല്ലാം തന്നെ പരസ്യമാണ് അവ ഒരു ബാങ്കിൽ കൂടുതൽ ആളുകൾ പണം നിക്ഷേപിക്കുംതോറും ആ ബാങ്ക് വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് അത്രയധികം ആളുകളുടെ സഹായം ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിൽ സഹായം ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രത്യേകമായി നമുക്ക് ഇത് ആവശ്യമാണ് അതുകൊണ്ടാണ് അവരുടെയടുത്ത് നമ്മൾ പറയുന്നത് എന്ത് പറ എന്തെങ്കിലും നമ്മൾ ചോദിക്കും ഇപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് വല്ല കുറവുകളുണ്ടോ വല്ല ഇ പി ഐ കുറവുണ്ടോ അല്ലേ ഓഫറുകളുണ്ടോ എന്ന് നമ്മൾ ചോയിക്കും ഇത് എന്തിനാണെന്നു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറവുള്ള റേറ്റിന് നമുക്ക് കുറവുള്ള ഒരു രീതിക്ക് നമുക്ക് പൈസ നിക്ഷേപിച്ചു കൂടുതൽ പണയപ്പെടുത്താൻ പറ്റും പണയും കൊടുക്കുമ്പോൾ കൂടുതൽ പലിശ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതായിരിക്കും സ്വീകരിക്കുക അപ്പോൾ അവിടെ നടക്കുന്നത് ബാങ്കുകൾ തമ്മിലുള്ള ഒരു കരാറെന്ന് പറയാൻ പറ്റില്ല ബാങ്കുകൾ തമ്മിലുള്ള ഒരു കളിയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഏത് ബാങ്കിലാണ് ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നത് ആ ബാങ്കിലാരിക്കും നാം നമ്മുടെ സംഭവങ്ങൾ നിക്ഷേപിക്കാൻ പോകുന്നത് അപ്പോൾ എന്തു ചെയ്യും ഓരോ ബാങ്ക് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പലിശയുടെ നിരക്ക് ആദ്യം കണ്ടുപിടിക്കും എന്നിട്ട് ഒരു ശത ഒരു ശതമാനമൊക്കെ കൂടുതൽ പലിശ ഉണ്ടാകുകയുള്ളൂ പക്ഷെ ആ ഒരു ശതമാനം കൂടുതൽ ഇപ്പോൾ നമ്മളെടുത്തു പന്ത്രണ്ട് രൂപ പലിശ കിട്ടും പതിമൂന്ന് രൂപ പലിശ കിട്ടുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പതിമൂന്ന് രൂപ പലിശ കിട്ടുന്ന ഇടത്ത് തന്നെയാണ് ഉറപ്പായിട്ടും നമ്മൾ നിക്ഷേപിക്കുകയുള്ളൂ അപ്പം ആ ഒരു രീതിയിലൂടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ബാങ്കിന് പുതിയ ഒരു ഒരു ശതമാനം പലിശ കൂട്ടിയത് കൊണ്ട് ബാങ്കിൽ പുതിയതായ ഒരു ആളെ അവർക്കു കിട്ടുകയാണ് ഇത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങളിൽ ബാങ്കുകൾക്ക് ഒരുപാട് നല്ല കയറ്റങ്ങൾ കിട്ടാൻ സഹായിക്കും അപ്പം മൊത്തത്തിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പരസ്യമാണ് നമ്മളെ ബാങ്കിലുള്ള പുതിയ നയങ്ങളെ കുറിച്ച് നമ്മളെ അറിയിക്കുന്നത് ഇന്റർനെറ്റിലും ഫോണിലും പേപ്പറിലുമൊക്കെ കാണുന്ന ഇത്തരത്തിലുള്ള നമ്മുടെ കണ്ണുകളെ ചിന്തിക്കുന്ന പരസ്യങ്ങൾ കണ്ട് നമ്മൾ അതിനോട് അതിനോട് നമ്മൾ ആകർഷിച്ചു പോയി നമ്മൾ ഈ പരസ്യങ്ങൾകൊണ്ട് നമ്മൾ തീരുമാനിക്കും ശരി ഞാൻ ഇവിടെയാണ് നിക്ഷേപിക്കുന്നത് എൻ്റെ പൈസ ഞാൻ നിക്ഷേപിക്കുന്ന ബാങ്ക് ഞാൻ ഉറപ്പിച്ചു ഇതാണത് അങ്ങനെ നമ്മൾ തീരുമാനിക്കും നമ്മളൊക്കെ ഇതേപോലെ ഓരോ പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഓരോ ബാങ്ക് തിരഞ്ഞെടുത്തതും അതിൽ പ പലിശ നിശേ നിക്ഷേപിച്ചിട്ടുള്ളതും അപ്പോൾ നമ്മൾ ഈ നിക്ഷേപിച്ച പൈസ അവിടെ ഉണ്ടോ എന്നറിയാൻ ബാങ്കില് വല്ല പുതിയ മേളകളോ അല്ലെങ്കിൽ വല്ല കൂടുതൽ പലിശ നിരക്കുകളുണ്ടെങ്കിൽ നമുക്ക് പത്രങ്ങളിൽ കാണം ഈ നിരക്ക് നമുക്ക് അവരെ വിളിച്ച് അന്വേഷിച്ചിങ്ങനെ ഒരു നിരക്ക് കയറ്റം ഞാൻ കണ്ടു അത് ഞാൻ ഇത്ര കൊല്ലം മുമ്പ് ഇട്ടിട്ടുള്ള എൻ്റെ വസ്തുക്കൾക്കും ഈ ഒരു പലിശ നിരക്ക് കിട്ടുമോ എന്ന് ചോദിക്കാം കിട്ടുമെങ്കിൽ ഒരു പക്ഷേ പതിമൂന്ന് രൂപ എന്നുള്ളത് നമ്മുക്ക് ചിലപ്പോൾ ഇരുപത്തഞ്ച് ഒരു അഞ്ചു കൊല്ലത്തിന് ശേഷം ഇരുപത്തഞ്ച് രൂപയുടെ പലിശ കിട്ടും അപ്പം നമുക്ക് പുതിയ പുതിയ വരുന്ന നയങ്ങൾ നമ്മൾ പാത്രങ്ങളിലോ അല്ലെങ്കിൽ പരസ്യങ്ങളായി കാണുമ്പോൾ നമ്മൾ അവരെ വിളിച്ച് അന്വേഷിച്ച് അവരുടെ അടുത്ത് കൂടുതലായി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും നമുക്ക് ലഭ്യമാകും അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ് നമുക്ക് അവരെന്ത് കളികൾ ചെയ്യുകയാണെങ്കിലും അവർ അവരുടെ സ്വന്തം എന്താ പറയുക വിജയത്തിനാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് അവിടെ വിജയമാണ് കാരണം നമ്മൾ വീട്ടിൽ എടുത്തു വെച്ചുകൊണ്ടിരുന്ന സ്വർണ്ണം നമ്മളൊരു ബാങ്കിലിടുമ്പോൾ നമുക്കത് പലിശ കിട്ടുകയാണ് നമ്മൾ വെറുതെ ഇരിക്കുന്ന പ സ്വർണം നമുക്ക് വേണമെങ്കിൽ പലിശ കിട്ടി ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ കൊല്ലങ്ങളോളം നമ്മളൊരു ബാങ്കിൽ വെക്കുന്നതിന് നമുക്ക് ലക്ഷങ്ങളോളം പലിശ കിട്ടുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മുക്കൊരു നഷ്ടവുമല്ല നമുക്കും ലാഭമാണ് അവർക്കും ലാഭമാണ് അപ്പോൾ നമ്മളവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യുന്ന ഒരു എന്താ പറയുക നമ്മൾ ഒരു ഒരു കരാറിൽ അങ്ങനെ പോകുകയാണ് അപ്പോൾ നമ്മൾ പത്രങ്ങളിലും അതുപോലെ ടി വിയിലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലും ഒക്കെ കാണുന്ന വിവരങ്ങൾ കാണുമ്പോൾ അന്വേഷിക്കുക അപ്പോൾ തന്നെ വിളിക്കുക നിങ്ങൾ ബാങ്കിലെയോ അല്ലെങ്കിൽ ബാങ്കുമായി നിങ്ങൾ കണക്ട ചെയ്യുന്ന ഒരു ആളുണ്ടാകും ഒരു അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരാളുണ്ടാകും ഒരു മാനേജർ നമ്മളെ എന്നും വിളിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ടിനെ പറ്റി ഒക്കെ അറിയുന്ന നമ്മളെ പണ്ടേ അറിയുന്ന ഒരു മാനേജരുണ്ടാകും ആ മാനേജരെ വിളിക്കുക ചേട്ടാ ഇങ്ങനെ ഒരു വാർത്ത ഞാൻ പേപ്പറിൽ കണ്ടു അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ നമ്മൾ ഒരു പതിമൂന്നു കൊല്ലം മുമ്പ് ഇട്ടിട്ടുള്ള സ്വർണ്ണമാണ് അപ്പം അതിപ്പം നമുക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനത്തിൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അവർ പറയും കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല എന്ന് പറയും കിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ചേട്ടാ നമ്മൾ ഇത്രയും വർഷമായി സ്ഥിരമായി നിങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിച്ചു നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ ചേട്ടാ എന്ന് ചോദിക്കാം അപ്പോൾ ആ ചേട്ടൻ പറയും ശരി നിങ്ങൾക്ക് എഴുപത്തഞ്ച് തരാൻ പറ്റില്ല ഒരു എഴുപത് ശതമാനം തരാം അപ്പോഴും നമുക്ക് ലാഭമാണ് കാരണം നമ്മൾ ഇരുപത്തഞ്ചു ശതമാനത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന നമുക്ക് എഴുപത് ശതമാനം കിട്ടിയാൽ അത് ലാഭമാണല്ലോ പതിമൂന്ന് വർഷം കഴിഞ്ഞു പോയില്ലേ നമ്മൾ വെറുതെ വെയ്ക്കാമായിരുന്ന സ്വർണ്ണമാണ് നമ്മളിപ്പോൾ ബാങ്കിലിട്ട് നമുക്ക് പലിശ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ എന്ത് പ്രത്യേകമായി എന്നും പത്രം വായിക്കുക അപ്പോൾ ഇൻ്റർനെറ്റിലുണ്ടാകുന്ന എല്ലാം ആളുകൾ വെറുതെ ചുമ്മാതൊക്കെ ആയിരിക്കാം നമ്മുടെ സമയം പോകും വായന ഇതൊക്കെ പോകും ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രം വായിക്കുക സ്ഥിരം പുതിയതായിട്ടുള്ള വാർത്തകളും നോക്കുക അതിൽ നമ്മൾ കണ്ടിട്ടുള്ള വാർത്തകൾക്കനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ ഉറപ്പായും നമ്മൾ തീരുമാനിക്കുക ശരി ഞാൻ ഇതാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്